എനിക്കുള്ള മൃഗങ്ങളെന്ന് പറഞ്ഞാല് കോഴി താറാവ് മുയലാണ് ഇവയെല്ലാം ഞാന് കുഞ്ഞിലെ കൊണ്ടു വന്നതാണ് മുയലാണെങ്കില് കുഞ്ഞിലേ കൊണ്ടു വന്നിട്ട് അതിന് ഞാന് കുപ്പിപ്പാൽനകത്ത് കുപ്പിപ്പാൽ കൊടുത്താണ് അത്ങ്ങളെ വളർത്തുന്നത് അതിനെ ആദ്യം മുറിക്കകത്തിട്ട് പരിചരിച്ച് അവയൊരുമാതിരി വലുപ്പമായതിന് ശേഷമാണ് അതിനെ കൂടുകളിലേക്ക് ആക്കിയത് കോഴിക്കുഞ്ഞുങ്ങളെ ആണെങ്കിലും വാ വാ ആദ്യം വന്ന സമയത്ത് അവയ്ക്കാദ്യമൊക്കെ മഞ്ഞ മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് കൊടുക്കും അതിനകത്തോട്ട് ഒരിച്ചിരി ക്രോസിന്റെ അത് നമ്മുടെ പാരസെറ്റാമോളിച്ചിരി കലക്കി അതിച്ചിരി ഇട്ട് കൊടുത്താണ് മഞ്ഞൾ വെള്ളവും പിന്നെ കൊ നമ്മുടെ നെല്ല് കുത്തരീടെ പൊടിയരി പൊടിയരിയൊക്കെ കൊടുത്താണാദ്യത്തെ കുറെ കാ മാസങ്ങളത്ങ്ങളെ നോക്കുന്നത് മുയലിനാണേലും ആദ്യം നമ്മൾ ചെറിയെ രീതിയിലുള്ള ഭക്ഷണങ്ങളായിട്ട് നമ്മുടെ ചോറ് ഉപ്പൊക്കെ ഒഴിച്ച് ഇച്ചിരാ പെടിഗ്രീടെയൊക്കെ പെടിഗ്രിയല്ല നമ്മടെയാ എന്നാ കു കൊഴ് കോഴിത്തീറ്റേടെയക്കെപ്പോലത്തെ അതക്കെ വാങ്ങിച്ച് അത് ചെറിയ രീതിയിൽ കൊടുക്കും എന്നിട്ടത്ങ്ങൾ ഒരു മാതിരി വലിപ്പം വെക്കുന്നതനുസരിച്ച് അവയുടെ ആഹാരക്രമത്തിലാണെങ്കിലും കു അവ അളവ്കളക്കെ കൂട്ടിക്കൊടുക്കാൻ തുടങ്ങി പിന്നെ പുല്ല്കളൊക്കെ കൊടുക്കാന് തുടങ്ങി കോഴിക്കും താറാവിനാണേലും അവയ്ക്കാവിശ്യമായിട്ടുള്ള കോഴിത്തീറ്റകൾ കൊടുക്കും അതോടൊപ്പം തവിട് തവിടും കുഴച്ച് അതിന്റെകൂടെ ഈ ചെറുതായിട്ട് അവ അവയ്ക്ക് വേണ്ട കോഴിത്തീറ്റേക്കാരു മറ്റത്ത് മറ്റ് തീറ്റകളുവൊക്കെ വെച്ച് കൊടുത്ത് അവ തിന്നുന്ന അനുസരിച്ച് അവയ്ക്കിഷ്ടമാണെന്ന് കാണുമ്പം പിന്നെ ഗോതമ്പ് ഗോതമ്പാദ്യവൊക്കെ ഞാണ് ഞുറ്ക്ക് ഗോതമ്പായിട്ട് കൊടുക്കുമായിരുന്നു അതിന് ശേഷം ഗോതമ്പിനെ കുറച്ചൂടൊക്കെ ഗോതമ്പായിട്ട് തന്നിട്ട് കൊടുക്കും പിന്നെ അരിയ് തവിട് ഇവയെല്ലാം കുഴച്ച് വെച്ച് കോഴിക്കും താറാവിനുവക്കെ കൊടുക്കും മുയലിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാലവയ്ക്ക് പ്രത്യേകതരം പുല്ല്കളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ പുല്ല്കൾ വിട്ട് കൊടുക്കുവായിരുന്നു കൂടുതലും അവയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റായിട്ട് വരുന്ന നമ്മുടെ മീൻ മീനക്കെ ഭയങ്കരിഷ്ടമാണ് അപ്പം മീനും ചോറും നമ്മൾ മനുഷ്യരെന്തെല്ലാം കഴിക്കുന്നുവോ അവയുടെ ഓരോ വലിപ്പം ആരോ അവർ വലുതാകുന്ന അനുസരിച്ച് അവയ്ക്ക് മനുഷ്യരെന്തൊക്കെ കഴിക്കും ആ ആഹാര സാധനങ്ങളെല്ലാം കുറെശ്ശെ കുറെശ്ശെ അവയ്ക്ക് കൊടുത്ത് കൊടുത്ത് അവയെ നവക്ക് അവയ്ക്ക് വേണ്ട പരിചരണങ്ങൾ നല്ലതായിട്ട് അവരെ ശുശ്രുഷിച്ച് ഇന്നും അവയെല്ലാം നല്ല രീതീൽ എനിക്ക് വളര്ത്താന് സാധിക്കുന്നു ഞാനതിൽ വളരെയധികം സന്തോഷവതിയാണ് എന്റെ ഇപ്പം ക എന്റെ ഫാമിലിപ്പം കുറെ കോഴികളുമുണ്ട് കുറെ താറാവുമുണ്ട് എനിക്ക് രണ്ട് മുയലുങ്കുഞ്ഞുങ്ങളുമുണ്ട്